അതേലോ ആ അത് ചുരിദാർ ടോപ്പ് തയ്ക്കുന്നതിനായിരുന്നേ അപ്പോൾ അതിന് ലൈനിംഗ് എടുത്തിട്ടില്ല ഞാൻ

അത് ഇല്ല അത് അതിനു പറ്റുന്നൊരു നോർമൽ തുണിയെടുത്ത് തയ്ച്ചാൽ മതി ആ എടുത്തോളൂ ആ കൂട്ടി പറഞ്ഞാൽ മതി ഇത് എനിക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വേണമായിരുന്നു ആ ആ ഇത് പ്രോഗ്രാമാണ് ആ ആ മോളുടേത് ഒരു വീഞ്ഞ് ഹലോ ആ പറ കൈയ്ക്ക് ഫുൾ വെച്ചോ ആ ഇല്ല പഫ് വേണ്ട ഫുൾ കൈ വെച്ചു തയ്ച്ചാൽ മതി

ആ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അങ്ങനെ ചെയ്തോ എൻവോയിസ് ഒക്കെ ചെയ്ത് എടി വൃത്ത് അതിന് ചേ അതിനു ചേരുന്നൊരു കളർ കോമ്പിനേഷൻ വെച്ച് ചെയ്തോ ആ ഡിസൈനിപ്പം അത് ഒന്ന് ഡിസൈൻ ഏതൊക്കെയാണെന്നു വെച്ചാൽ എനിക്കൊന്ന് അയച്ചു തന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു ആ പറഞ്ഞേക്കാം കിട്ടിയെന്ന് ഓക്കെ ഇന്ന് എനിക്ക് അടുത്തത് അടുത്ത ദിവസം ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ട് ഡ്രസ്സ് എൻ്റെ വീട്ടിലേക്കു തരുമോയെന്നു നോക്കാൻ ഇരിക്കുന്നത് അപ്പം ടൈം കിട്ടുകയാണെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ജോഡി കാണും അപ്പം അതു ഞാൻ നേരത്തെ എടുത്തു കൊണ്ടു പോയി തരാം അപ്പം എനിക്കതൊരു ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ തയ്ച്ചു തരുമോയെന്നറിയാനായിട്ട്

അതൊരു വെഡ്ഡിങ് ഫങ്ഷന് ഉള്ളതായിരുന്നു ആ ഫ്രോക്കാണ് അത് ഫ്രോക്ക് ആ ഫുൾ ഫ്രോക്ക് ആ അത് നെറ്റ് നെറ്റായിട്ട് എടുത്തിട്ട് മുകളിൽ വേറെ തുണിയൊക്കെ വെച്ചു തയ്ക്കുകയെന്നുള്ള രീതിയിലായിരുന്നു ആ ഇല്ല തുണി എടുത്തില്ല എടുത്ത് ഞാൻ തരാം ആ

വിസിൽ കൂടി വെക്കാം വേണ്ട വേണ്ട വേണ്ട വേണ്ട വേണ്ട വേണ്ട എടി എനിക്കറിയാടി